ഹലോ മെരീന മീൻ ഫിഷ് മാർക്കറ്റ് അതെയല്ലോ ഓ ഒരു കിലോ കരിമീൻ ഓക്കേ ഹോം ഡെലിവറി ചെയ്യണോ അതോ വന്ന് വാങ്ങിക്കുമോ ഒരു കിലോ കരിമീനിന് ഫോർ ഫിഫ്റ്റി റുപ്പീസാവും ഫോർ ഫിഫ്റ്റി നല്ല ഫ്രഷായിട്ട് വരുന്ന മീനായതുകൊണ്ടാണ് മാം ഇത്രയും വില വരുന്നത് ഓ യാതൊരു മരുന്ന് മരുന്നുകളോ കാര്യങ്ങളോ ഒന്നും ചേർക്കാതെ വരുന്ന മീനാണ് നമ്മൾ ഇത് നമ്മളായിട്ട് സ്വന്തമായിട്ട് ഫാമിൽ വളർത്തുന്ന കരിമീനാണ് മാം വരുന്നത് അതുകൊണ്ടാണ് നമുക്ക് അപ്പു അപ്പുറത്ത് ഇപ്പുറത്തും വരുന്ന കടകളിലല്ലല്ലോ മാം നമ്മൾ വളർത്തുന്ന ഒരേ രീതിയിൽ നമ്മൾ സ്പെഷ്യലായിട്ടുള്ള ഫുഡും കാര്യങ്ങളുമൊക്കെ കൊടുത്തിട്ടാണ് ഈ ഈ ഫിഷിനെ വളർത്തുന്നത് മാം മാം നമ്മൾ നമ്മൾ കൊടുക്കുന്നത് ഏറ്റവും നല്ല ഓർഗാനിക്കായിട്ടുള്ള കാര്യങ്ങളാണ് അതുകൊണ്ട് ഏറ്റവും നമ്മൾ ഒരു തരത്തിലുള്ള കീടനാശിനികളോ ഒന്നും ഓർഗാനിക് ഫുഡുകൾക്ക് എപ്പോഴും നല്ല വിലയാ റേയ്റ്റ് കൂടും മാത്രമല്ല നിങ്ങൾക്ക് ഹോം ഡെലിവറി വേണം വേണം ഹോം ഡെലിവറിയെന്ന് പറയുമ്പോഴത്തേനും നിങ്ങൾ നിങ്ങളുടെ ലൊക്കേഷൻ ലൊക്കെ നിങ്ങൾ നിങ്ങളുടെ ലൊക്കേഷൻ കൊടുത്തുതന്നെയാണ് ഇവിടെനിന്ന് ഏകദേശം ഒരു മൂന്ന് നാല് കിലോമീറ്ററുണ്ട് അപ്പം അതനുസരിച്ചുള്ള ഡെലിവറി ചാർജ്ജും അവർക്കുണ്ട് ആ അതിനു വരുന്ന സ്റ്റാഫുമാർക്ക് ഉള്ള പൈസയും ഞങ്ങൾക്ക് കൊടുക്കണം അപ്പോൾ അതനുസരിച്ചുള്ള റേയ്റ്റ് ഞങ്ങൾക്ക് വാങ്ങിച്ചേ പറ്റുകയുള്ളൂ നമ്മളും ക്ലീൻ ചെയ്തുതന്നെയാണ് കൊടുക്കുന്നത് നമ്മളും അതുമാത്രമല്ല നമ്മൾ ഒരു തരത്തിലുള്ള കീടനാശിനികളും മരുന്നുകളും ഒന്നും ചെയ്യുക ഐസിൽ പോലും ഇടാത്ത ഫിഷാണ് തരുക ഫ്രഷായിട്ട് ഇപ്പോൾത്തന്നെ കുളം നമ്മുടെ കുളത്തിൽനിന്ന് പിടിച്ചിട്ടാണ് നമ്മൾ ഇപ്പോൾത്തന്നെ അയയ്ക്കുന്നത് അല്ല ക്ലീൻ ചെയ്ത് അയയ്ക്കുന്നത് അല്ലാതെ നേരത്തെ ബാക്കിയുള്ളവരെപ്പോലെ മേടിച്ച് ഐസിനകത്ത് ഇട്ടുവെച്ചതൊന്നുവല്ല തരുന്നത് അതാ പറയുന്നത് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോളും നമ്മൾ ഫ്രഷായിട്ടുള്ള മീനിനെയാണ് നിങ്ങൾക്ക് തരുന്നത് അപ്പോഴത്തേനും അതിനനുസരിച്ചുള്ള റേയ്റ്റ് ഓർഗാനിക് സാധനങ്ങൾക്ക് എപ്പോഴും വിലയാണ് മാം അതാ മാം പറഞ്ഞത് ഓർഗാനിക് സാധനങ്ങളാണ് നമ്മൾ ഫ്രഷായിട്ട് കുളത്തിൽനിന്ന് പിടിച്ച് ക്ലീൻ ചെയ്ത് ഹോം ഡെലിവറി ചെയ്യുന്നതാണ് അപ്പോഴത്തേന് അതിനനുസരിച്ചുള്ള റേയ്റ്റും ഹോം ഡെലിവറിയ്ക്കുള്ള ചാർജും ടാക്സും എല്ലാം വരുന്നുണ്ട് മാം ഇതൊരു മാം ഇതുവരെ ആർക്കും ഇങ്ങനെ ഒരു ഇഷ്യൂ വന്നിട്ടില്ല എല്ലാവരും ഇവിടെനിന്ന് സ്ഥിരമായി വാങ്ങിക്കുന്ന ഒരുപാട് കസ്റ്റമേഴ്സുണ്ട് അവർക്കാർക്കും ഈ ഇഷ്യൂ ഇല്ല ഞങ്ങളാദ്യം തൊട്ട് ഇത് ഇതേ പ്രൈസിലാണ് കൊടുക്കുന്നത് കൂട്ടിയിട്ടില്ല കുറച്ചിട്ടുമില്ല മാത്രമല്ല ഞങ്ങൾ ഈ ഓർഗാനിക്കായിട്ട് കൊടുക്കുന്ന അതിൻ്റെ ഗുണമേന്മയ്ക്ക് ഒരു വിട്ടുവീഴ്ചയും ഞങ്ങൾ വരുത്താറില്ല അപ്പോഴത്തേന് ഈ ഒരു ഈ ഒരു പ്രൈസ് ഞങ്ങൾ റീസണബിളാണെന്നാണ് കരുതുന്നത് ഓക്കേ മാം എപ്പോഴത്തേനാണ് ഓക്കേ നിങ്ങളുടെ സ്ഥലവും അഡ്രസ്സും എനിക്കൊന്ന് പറഞ്ഞു തരുമോ ഓക്കെ ഓക്കേ നമ്പറ് ഈ നമ്പറുതന്നെ വിളിച്ചാൽ മതിയോ എത്തിയതിനു ശേഷം മാമിൻ്റെ പേര് പറയാൻ പറ്റുമോ ആ നമുക്ക് രണ്ടും അവൈലബിളാണ് നമുക്ക് ഡെലിവറി ചെയ്തു കഴിഞ്ഞിട്ടും ക്യാഷ് പെയ്മെൻറ് ചെയ്യാം ഓൺലൈനാണോ ക്യാഷാണോ ഓക്കേ ഓക്കേ നമ്മുടെ ഡെലിവറി ബോയ് അഞ്ച് മണിക്ക് മുമ്പ് അവിടെ എത്തുന്നതായിരിക്കും എത്തുന്ന എത്തിയ സമയത്ത് ഈ നമ്പറിൽ കോൾ ചെയ്യുന്നതായിരിക്കും നമ്മൾ ബില്ല് ബില്ല് വേണോ വേണ്ടയോ ഓക്കേ പെയ്മെൻറ്റ് ചെയ്തതിനുശേഷം നമ്മൾ ഡെലിവറി ബോയുടെ കയ്യിൽനിന്ന് നമുക്ക് ബില്ല് കൈപ്പറ്റാവുന്നതാണ് ഓക്കേ